പരമ്പരാഗത നൃത്ത രൂപങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ വളരേയധികം പ്രാധാന്യം ചെലുത്തുന്ന ഒന്നാണ് ഇപ്പം ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഭാരതനാട്യം ആണ് കൂടുതലും ആൾക്കാർക്ക് പ്രിയം അതുപോലെതന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻറ്റേതായ പ്രിയപ്പെട്ട കലാരൂപങ്ങൾ കാണും അപ്പം നമുക്ക് ഒരു കലയോട് ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു നർത്തകനാകണം ആ ഒരു പരമ്പരാഗത നർത്തകനാകണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ കലയോടു നമുക്കൊരു സ്നേഹം തോന്നണം പിന്നെ അതിനോട് അടുക്കുന്ന രീതി ചിലർ ഇതു കണ്ടു കണ്ടായിരിക്കും എനിക്കത് പഠിക്കണം എനിക്കും അങ്ങനെ കളിക്കണമെന്നൊക്കെ തോന്നുന്നത് അപ്പം ആ ഒരു ആ ഒരു അർപ്പണ ബോധം എപ്പോഴും അതിന് അതിനോടു നമുക്കു വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്ക് ഈ പരമ്പരാഗത ഒരു ഒരു നല്ല പരമ്പരാഗത നർത്തകനാകാൻ സാധിക്കും പിന്നെ

എല്ലാ നൃത്ത രൂപങ്ങളും കലകളും ചേരുന്ന ചേരുന്ന ഒരു രാജ്യമാണ് ഒരു രാജ്യമാണല്ലോ ഇന്ത്യ അപ്പം ഇന്ന ഇന്ന കലകൾക്ക് ഒരു പ്രാധാന്യം എന്നുള്ളതില്ല പല കുറേ കുറേ കലകളുടെ ഒരു ഒരു സമ്മേളനം പോലെയാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുക കഥകളി അതുപോലെ ഫോക്ക്ലോറ് അങ്ങനെ ഇഷ്ടം പോലെ കലകളുടെ ഒരു ഒരു ഒഴുക്കാണ് ഇന്ത്യ